ഞാൻ സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്താണ് സ്റ്റാമ്പ് ശേഖരങ്ങൾ തുടങ്ങിയത് ഇന്ന് എഴുത്തു കുത്തുകള് വളരെ കുറവാണ് ഇന്ന് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൂടുതലായിട്ട് വന്നുകഴിഞ്ഞപ്പോൾ ആൾക്കാര് എഴുത്തുകൾ അയക്കുന്നതേ ഇല്ലാത്ത ഒരു അവസ്ഥയിലേക്കു മാറിയിരിക്കുന്നു എന്നാൽ എൻ്റെ ചെറുപ്പ കാലത്ത് എല്ലാ വിവരങ്ങളും കൃത്യമായിട്ട് മറ്റുള്ളവരിലേക്ക് അറിയിച്ചുകൊണ്ടിരുന്നത് അകലെ താമസിക്കുന്നവർക്ക് അയിച്ചുകൊണ്ടിരുന്നത് എഴുത്തുകുത്തുകളിലുള്ള മാത്രമാണ് അന്ന് കവര് ഇന്ലാന്ഡ് കാർഡ് ഇതൊക്കെയാണ് അന്നുണ്ടായിരുന്നത് അന്ന് അന്ന് ആ കാലഘട്ടങ്ങളില് കവറില് ഒട്ടിച്ചിരുന്ന സ്റ്റാമ്പുകൾ പറിച്ച് ശേഖരിക്കുമായിരുന്നു അതുപോലെ വിവിധ പൈസയുടെ സ്റ്റാമ്പുകള് ഓരോ കവറിൽ നിന്നും അതു കീറിപ്പോകാതെ വെള്ളം കുതിർത്ത് നനവ് എടുത്ത് കുതിര്ത്തെടുത്ത് എടുത്തു പ്രത്യേകം പ്രത്യേകം അത് ഒരു ഫയല് പോലെ അതിന്റകത്ത് ഒട്ടിച്ചുവച്ച് ശേഖരിക്കുമായിരുന്നു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പല വിദേശത്തുനിന്നും ആൾക്കാർക്ക് എവിടെയെങ്കിലും എഴുത്തുകള് വന്നാല് അതിലും സ്റ്റാമ്പുകളുണ്ടായിരുന്നു ആ സ്റ്റാമ്പുകളും അവരോട് ചോദിച്ചുവാങ്ങി ശേഖരിക്കുന്ന ഒരു താല്പര്യമെനിക്കുണ്ടായിരുന്നു അങ്ങനെ അനേകം സ്റ്റാമ്പുകള് ചെറുപ്പത്തിലേ ശേഖരിച്ചു

ചെറിയ തുകയുടെ സ്റ്റാമ്പുകൾ മുതൽ വലിയ തുകയുടെ സ്റ്റാമ്പുകൾ വരെ ശേഖരിച്ചു ആ സ്റ്റാമ്പുകൾ ഒരു പരിധി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് വന്നുകഴിഞ്ഞപ്പോൾ അതുവരെ ശേഖരിച്ചുള്ളൂ അതുകഴിഞ്ഞ് പിന്നെ അത് എൻ്റെ ചിറ്റപ്പൻ്റെ മക്കള് അനിയന്മാർക്ക് ഞാൻ കൊടുക്കുകയാണ് ചെയ്തത് പിന്നെ അതിനെപ്പറ്റി എനിക്കറിയില്ല പിന്നെ അവരും കുറേ നാള് അത് ശേഖരിച്ചതായിട്ടാണു കണ്ടത് അത് സ്റ്റാമ്പ് ശേഖരണം ആ കാലഘട്ടങ്ങളില് എല്ലാവരുടെയും ഒരു വിനോദമായിരുന്നു ഇന്ന് സ്റ്റാമ്പുകൾ ആദ്യം കാര്യമായിട്ടു ശേഖരിക്കാറില്ല കാരണം ഇന്ന് സ്റ്റാമ്പുകളുടെ ഉപയോഗം തന്നെ പൊതുവേ കുറഞ്ഞു പോയി ഇന്ന് എഴുത്തുകുത്തുകള് കിട്ടാറില്ല എല്ലാവരും മൊബൈൽ ഫോണിലേക്കു മാറിയിരിക്കുന്ന ആ കാലഘട്ടമായിപ്പോയി എന്ന് ആദ്യം ഞാൻ സൂിപ്പിച്ചുവല്ലോ അതുപോലെ തന്നെ നാണയങ്ങള് നാണയങ്ങൾ ചെറുപ്പകാലത്ത് ഒരു പരിധിവരെ ഞാൻ സൂക്ഷിച്ചിരുന്നു കാരണം എൻ്റെ ഓർമ്മയിലെ നാണയം

ഞാൻ എൻ്റെ ചെറപ്പ കാലത്ത് അണയായിരുന്നു അത് ആ അണ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പൈസയിലേക്കു വന്നത് അതിനുമുമ്പ് കാശ് ചക്രം ഇതൊക്കെയായിരുന്നു ആ കാശ് ചക്രം ഇതൊക്കെ എൻ്റെ ഓർമ്മയേ ഉള്ളൂ ഞാനത് ഉപയോഗിച്ചിട്ടില്ല ഞാൻ ഉപയോഗിച്ചു തുടങ്ങിയത് അണയും അതു കഴിഞ്ഞുള്ള പൈസയും രൂപയുമൊക്കെയാണ് അപ്പോള് പണ്ടുകാലത്തുള്ള ചക്രങ്ങള് ഇതൊക്കെ അന്നു വളരെ അപൂർവമായിട്ടാണു കിട്ടുന്നത് എവിടെയെങ്കിലും ആർക്കെങ്കിലും മറന്നുവച്ചുപോയതോ നഷ്ടപ്പെട്ടതൊക്കെ ആയിട്ടുള്ളതാണ് സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള കാലമായതുകൊണ്ട് അതിനൊക്കെ അന്നൊക്കെ വളരെ മൂല്യങ്ങളുണ്ടായിരുന്നു അങ്ങനെ കിട്ടുന്ന ആ ചക്രവും കാശും ഒക്കെ സൂക്ഷിച്ചു അതുപോലെ അതു കഴിഞ്ഞു കിട്ടിയ അണകള് ഒരണ രണ്ടണ ഇങ്ങനെയുള്ള അണകളൊക്കെ ഉണ്ടായിരുന്നു അണകൾക്കെല്ലാം ഓരോ രൂപ സാദൃശ്യങ്ങളാണ് ഓരോന്നിനും ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് അതൊക്കെ അന്നു കൃത്യമായിട്ടു തിരിച്ചറിയാൻ പറ്റിയത് അതു കഴിഞ്ഞ് പിന്നെ പൈസകളായി പൈസകളായി കഴിഞ്ഞപ്പോൾ ഒരു പൈസ രണ്ടു പൈസ മൂന്നു പൈസ അഞ്ചു പൈസ പത്തു പൈസ ഇരുപതു പൈസ ഇരുപത്തിയഞ്ചു പൈസ അമ്പതു പൈസ ഒരു രൂപ എന്ന വലുതിലേക്കു വന്നു അതുപോലെ തന്നെ ആദ്യം അണ എന്നു പറയുന്നത് ഒരണ എന്നു പറഞ്ഞാൽ ആറു പൈസയാണ് അങ്ങനെ വരുമ്പോൾ നാലണ എന്നു പറഞ്ഞാൽ ഇരുപത്തി നാലു പൈസയാവും ആറുനാല് ഇരുപത്തി നാല് അപ്പോൾ ഇരുപത്തി നാല് എന്നുള്ളതിന് അത് ഇരുപത്തിയഞ്ച് പൈസ എന്നുള്ള ഗണത്തിലേക്കാക്കി അതായത് നാലണ എന്ന് പറഞ്ഞാല് ഇരുപത്തിയഞ്ച് പൈസ എന്നാക്കി അങ്ങനെ വന്നെങ്കിലാണ് എട്ടണ എന്നു പറയുമ്പോൾ അമ്പത് പൈസയും എഴുപത്തിയഞ്ച് പൈസയെന്നു പറയുമ്പോൾ മുക്കാലണയും ഒരു രൂപ ഒരു രൂപയെന്നു പറയുമ്പോൾ പതിനാറണ അങ്ങനെ ആണു വന്നത് അങ്ങനെ നാല് പതിനാറണ അങ്ങനെ വരുമ്പോൾ ഇരുപത്തിയഞ്ചു പൈസ അന്പതു പൈസ എഴുപത്തിയഞ്ചു പൈസ ഒരു രൂപ നൂറു രൂപ അല്ല നൂറു പൈസ അങ്ങനെ കണക്കാക്കി ഒരു രൂപ നൂറു പൈസ എന്നു കണക്കാക്കിയാണ് വന്നത് അതുകഴിഞ്ഞ് രൂപ പൈസയുടെ മൂല്യങ്ങൾ കുറഞ്ഞു പോയപ്പോൾ ഒരു പൈസ പോയി രണ്ടു പൈസ പോയി മൂന്നു പൈസ പോയി അഞ്ചു പൈസ പോയി പത്തു പൈസ പോയി ഇരുപത് പൈസ പോയി ഇരുപത്തതിയഞ്ച് പൈസ പോയി ഇന്ന് അന്പതു പൈസ നിരോധിച്ചിട്ടില്ല പിൻവലിച്ചിട്ടില്ല പക്ഷെ എങ്കിലും ഇന്ന് അൻപത് പൈസയ്ക്കു കിട്ടുന്ന ഒരു സാധനവും ഇല്ലാത്ത അവസ്ഥലായി അതുകാരണം നിലവിലിന്ന് അൻപത് പൈസ പ്രയോഗത്തിലില്ല ഇന്ന് ഒരു രൂപ രണ്ടു രൂപ ഒരു രൂപ നാണയങ്ങള് രണ്ടു രൂപ നാണയങ്ങള് അഞ്ചു രൂപ നാണയങ്ങള് പത്തു രൂപ നാണയങ്ങള് ഇരുപത് രൂപ നാണയങ്ങള് ഇതൊക്കെയാണ് ഇന്ന് ഇപ്പോൾ പ്രചാരത്തിലുള്ളത് അതുപോലെ പഴയ ഒരു രൂപ ഒരു പൈസ രണ്ടു പൈസ മൂന്നു പൈസ ഇങ്ങനെയുള്ളതെല്ലാം ഇന്നു പൂർണ്ണമായിട്ടും അപ്രത്യക്ഷമായി അതുപോലെ നോട്ടുകളെല്ലാം വന്നു അന്ന് ഒരു രൂപ നോട്ടുണ്ടായിരുന്നു ഇന്ന് ഒരു രൂപ നോട്ടുകള് അടിച്ചിറക്കുന്നില്ല ഇന്നു നാണയങ്ങളാണ് അതുപോലെ രണ്ടു രൂപ നോട്ടുകളുണ്ടായിരുന്നു രണ്ടു രൂപ നോട്ടുകളും ഇന്നടിച്ചിറക്കുന്നില്ല അതും മാറിപ്പോയി അഞ്ചു രൂപ നോട്ടുകള് ഉണ്ടായിരുന്നു അഞ്ചു രൂപ നോട്ടുകൾക്കു പകരവും ഇന്നു നാണയങ്ങളാണ് പത്തു രുപാ നോട്ടുകളും നാണയങ്ങളുമുണ്ട് ഇന്നിപ്പോൾ ഏറ്റവും കൂടുതല് പത്തിൻ്റെയും ഇരുപതിൻ്റെയും നോട്ടുകളാണു കൂടുതലായിട്ടുള്ളത്

നോട്ടുകളുടെ യുഗത്തിലേക്കു മാറിപ്പോയി മാറിക്കൊണ്ടിരിക്കുന്നു ഇതാണ് എനിക്ക് സ്റ്റാമ്പുകളെക്കുറിച്ചും നാണയങ്ങളളെക്കറിച്ചും പറയാനുള്ളത് കല്ലുകളെപ്പറ്റി കൂടുതലായിട്ട് ഒന്നും പറയാനില്ല കാരണം പണ്ട് പണ്ടുകാലത്ത് നാണയങ്ങൾക്കു പകരം കല്ലുകളാണോ ഉപയോഗിച്ചിരുന്നത് എന്നൊന്നും ഇതൊക്കെ പറയേണ്ടതിനെപ്പറ്റി കൂടുതൽ അറിവില്ലാത്തതിനാൽ ഞാൻ കൂടുതലായി ഒന്നും പറയുന്നില്ല